ഇന്ത്യൻ മാധ്യമങ്ങളിൽ പത്രങ്ങളൊക്കെ പകുതി വിഭാഗവും ജനങ്ങളിലോട്ട് സത്യസന്ധമായ വാർത്ത ശരിയായ വാർത്ത ജനങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് പക്ഷേ എന്നാൽ ചിലത് ശരിയായ വാർത്തകൾ തെറ്റായ രീതിയിൽ ജനങ്ങളിലോട്ട് എത്തിക്കുന്നു പത്രങ്ങളില് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പത്രത്തിന്നെ വിമർശിക്കുകയാണെങ്കിലും അതിനും നമ്മള് ആശ്രയിക്കുന്നത് പത്രങ്ങളെ തന്നെയാണ് കാരണം പത്രങ്ങളാണല്ലോ വാർത്ത ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് അതുപോലെത്തന്നെ ഇപ്പോൾ ഒരാളൊരു ഒരു പത്രത്തിലൊരു വാർത്ത വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസിലോട്ട് ആദ്യം വരുന്നത് ഇത് അസത്യമാണോന്നാണ് അതിൻ്റെ കാരണവും യഥാർഥത്തിൽ പത്രങ്ങള് തന്നെയാണ് കാരണം പത്രങ്ങൾ ആദ്യം വാർത്തകൾ ശരിയായ വാർത്തകൾ തെറ്റായ രീതിയിൽ ജനങ്ങളിലോട്ട് എത്തിക്കുന്നു ഇത് സ്ഥിരം കാണുന്ന ജനങ്ങൾ പത്രത്തിലൊരു ശരിയായ വാർത്ത വന്നാലും ഇത് ഒരുപക്ഷെ തെറ്റാണോ എന്നായിരിക്കും അവരാദ്യം ചിന്തിക്കുക അതിൻ്റെ കാരണക്കാർ യഥാർത്ഥത്തിൽ പത്രങ്ങളെന്നെയാണ് ഇത് ചില പത്രങ്ങൾ മാത്രമാണ് എന്നാ ചിലർ ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ തന്നെ ജനങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട് ഒരുപാട് മഹത്വ്യക്തികള് പറഞ്ഞിട്ടിണ്ട് ഇപ്പോളൊരു വല്യൊരു ഒരു പുരോഹിതൻ പറഞ്ഞിട്ടിണ്ട് തനിക്ക് കിട്ടിയ ആദ്യ ആകെ അറിവുകളില് ഭൂരിഭാഗവും പത്രങ്ങളിൽ നിന്ന് കിട്ടിയതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്രങ്ങളെന്ന് പറയുന്നത് നല്ലതാണ് ചില പത്രങ്ങൾ നമ്മുക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ തരുന്നു പക്ഷെ എന്നാൽ ചെലത് ശരിയായതുകൂടി തെറ്റായ രീതിയിലാണ് നമ്മളിലോട്ട് എത്തിക്കുന്നത്